മ്യൂറൽ പെയിൻ്റിങ്ങ് എന്ന് പറയുമ്പോൾ ഉപരിതലങ്ങളിൽ വരയ്ക്കുന്ന ഒരു പെയിൻ്റിങ്ങ് ആണ് അത് സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് മ്യൂറൽ പെയിൻ്റിങ്ങ് ഇത് ഇന്ത്യയിലാണെങ്കിൽ കേരളം തമിഴ്നാട് രാജസ്ഥാൻ എന്നീ ഇവിടങ്ങളിൽ എല്ലാം വളരെ പ്രധാന്യം അർഹിക്കുന്നു കേരളത്തെ പറയുകയാണെങ്കിൽ ഭക്തിപരമായിട്ടും ഉള്ള ഇതിലും പ്രധാന്യമുണ്ട് കാര്യം അമ്പലങ്ങളിൽ ഉള്ള ചുമരുകളിലെല്ലാം മ്യൂറൽ പെയിൻ്റിങ്ങ്സ് ഒരുപാട് അമ്പലങ്ങളിൽ ഇത് വരച്ചിരിക്കുന്നു കേരളത്തിൽ ഇത് പല തരത്തിലുണ്ട് മെക്സിക്കൻ മ്യൂറൽ ആർട്ട് ഈജിപ്ഷ്യൻ മ്യൂറൽ ആർട്ട് എന്നിങ്ങനെ ഒരുപാട് തരത്തിൽ മ്യൂറൽ ആർട്ട് ഉണ്ട് ഈ സാധാരണയായിട്ടും നമ്മൾ ഇപ്പോൾ സാരികളിലെല്ലാം മ്യൂറൽ പെയിൻ്റിങ്ങ് ചെയ്യാറുണ്ട് ഒരുപാട് ദൈവങ്ങളുടെ പടമായാലും അല്ലാതെ ഒരുപാട് ഇതായിട്ട് നമ്മൾ വരക്കുന്നുണ്ട് സാരികളിൽ ഒരുപാട് കാണാം സെറ്റ് സാരികളിലാണ് ഇത് കൂടുതലും കാണുന്നത് നേരിയത് സാരി ഇതിൻ്റെ ഉള്ളടക്കമെന്ന് പറയുന്നത് ചരിത്രങ്ങളിലും കഥകളുമൊക്കെയാണ് ഈ മ്യൂറൽ പെയിൻ്റിങ്ങ് സാധാരണയായിട്ട് ഒരു വരക്കുന്നത് ഇപ്പോൾ പണ്ടത്തെക്കാളും ഒരുപാട് ആൾക്കാർ ഇതിൽ കടന്ന് വരുന്നു പ്രചാരവും കൂടുന്നുണ്ട് മ്യൂറൽ പെയിൻ്റിങ്ങ് എന്നു പറയുമ്പോൾ ഒരുവിധം എല്ലാവരും മുന്നിലേക്ക് എത്തുന്നു എത്തുന്ന കാലഘട്ടമാണ് ഇത് പിന്നെ ഇത് ഓയിൽ പെയിൻ്റുകളും ആക്രിലിക്ക് പെയിൻ്റും ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട് പിന്നെ പഴയ പെയിൻ്റിങ്ങ് ചെയ്തിട്ടുള്ള മ്യൂറൽ പെയിൻ്റിങ്ങ് ചെയ്തിട്ടുള്ളതെല്ലാം നഷ്ട്ടപ്പെട്ടു പോകാതിരിക്കാൻ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻ്റ് പല പദ്ധതികളും ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്